മലയാള ഭാഷ സംസാരിക്കുന്നതിൽ ഞാൻ അഭിമാനം എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ച് വന്നാ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം എന്ന് പറയുന്നത് അപ്പോൾ അത്രയും പ്രൗഡ് ഉള്ളൊരു ഭാഷ തന്നെയാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിലും നമുക്ക് നിങ്ങളുടെ ഭാഷ ഏതാന്ന് ചോദിച്ച് വന്നാൽ മലയാളം എന്ന് നമുക്ക് പറയാൻ ആ ഒരു ധൈര്യം അത്രയും നല്ല ഒരു ലാംഗ്വേജാണ് മലയാളം എന്ന് പറയണത് അപ്പോൾ അതിന് അത്രയും ഇംപോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും നമ്മള് ഒരോ വാക്കും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കൂടുതൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഓരോ കേരളത്തിൽ ഓരോ ജില്ലകളിലും മലയാളഭാഷ എല്ലാവരും യൂസ് ചെയ്യേണ്ട പക്ഷെ ജില്ലകളിലെ സ്ലാങ്ങുകൾ വേറെ ആയത് കൊണ്ട് അപ്പം ഇപ്പോൾ പാലക്കാട് ഭാഷയാണെങ്കിലും അല്ലെങ്കിൽ തൃശ്ശൂര് എറണാകുളം അങ്ങനെ എല്ലാവിധ അവരിണ്ടല്ലോ സ്ലാങ് വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് എൻ്റെ സ്ലാങ് വ്യത്യാസമുണ്ട് പക്ഷെ മ മലയാള ഭാഷ സംസാരിക്കുന്നതില് അഭിമാനം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും പുറത്ത് പോയാലും ആര് ചോദിച്ചാലും ഞാന് ഏത് ഭാഷയാണ് അല്ലെങ്കിൽ ഞാൻ താൻ എവിടുന്നു വന്നു എന്ന് ചോദിച്ച് പറഞ്ഞാൽ ഞാൻ ധൈര്യത്തോടെ പറയും ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മാതൃഭാഷയാണ് എന്ന് പറയും കൂടുതലായിട്ടും നമ്മൾക്ക് ആ ഒരു പ്രൗഡ് തന്നെയാണ് ആ സംസാരിക്കുന്നതിലും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് നമുക്ക് ആ കിട്ടുന്ന ഒരു പ്രൗഡ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പൊതുവായിട്ട് ഞമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് എന്ന് പറയാൻ ഒന്നുമില്ല പക്ഷെ ഞമ്മള് എല്ലാത്തിനേയും കാട്ടിൽ മുൻഘടന കൊടുക്കേണ്ടതും ഈ ഒരു മാതൃഭാഷയ്ക്ക് തന്നെ ആണ്